സാഹിത്യത്തിലും കവിതയിലും മറ്റു കലാവിഷ്കാരങ്ങളിലും ഏറ്റവും കൂടുതൽ അതിൽ മലയാള ഭാഷ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പണ്ടുതൊട്ടെ പറയാറില്ലെ ഓരോ കാര്യം നമുക്കേറ്റവും നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ മാതൃഭാഷ ഉപയോഗിക്കണം നമ്മുടെ മാതൃഭാഷ മലയാളമായ കാരണം ഒരു കാര്യം നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ അത് മലയാളത്തിൽ ഉപയോഗിച്ചാലാണ് നമ്മുക്കത് പെട്ടെന്ന് മനസ്സിലാവുക അതുകൊണ്ടുതന്നെ ഇപ്പോൾ നമുക്ക് പല കവിതകളും അല്ലെങ്കിൽ നോവലുകളും വായിക്കുമ്പോൾ നമുക്ക് വേറെ ഭാഷയിൽ വായിച്ചാൽ ചിലപ്പോൾ അതൊക്കെ മര്യാദയ്ക്ക് മനസ്സിലാവണം എന്നില്ല അപ്പോൾ അത് ആ ഒരു കാര്യം നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാവണമെങ്കിൽ അത് നമ്മളെ മലയാള ഭാഷയിൽ തന്നെ എഴുതണം അതുതന്നെ അത് വായിച്ചാലെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളു ചില ആൾക്കാരുണ്ട് ചിലപ്പോൾ നോവലുകൾ വേറെ ഭാഷയിലെ നോവലുകൾ അവർക്ക് വായിച്ചാൽ അല്ലെങ്കിൽ ബാക്കി ഭാഷകളിലൊക്കെ കവിതകൾ അവർക്ക് വായിച്ചാൽ മനസ്സിലാവില്ല അപ്പോൾ ഒരു ഉദാഹരണത്തിന് സുധമൂർത്തി വളരെ ഒരു പ്രശസ്തമായൊരു പോയറ്റാണ് ആളുടെ കവിതകൾ ഒക്കെ വായിക്കണമെങ്കിൽ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും പെട്ടന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അന്യഭാഷ വായിക്കാനറിയാത്ത ഒരാൾക്കാണെങ്കിൽ മലയാള ഭാഷയിൽ ഒരു കവിത അല്ലെങ്കിൽ ഒരു സാഹിത്യം എഴുതുകയാണെങ്കിൽ അത് അത്രയും നല്ലതാവും